ഞാൻ ഞാൻ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് അപ്പം ഞാൻ ബൈബിൾ ആണ് വായിക്കാറ് അപ്പം ബൈബിളിൽനിന്ന് എനിക്ക് ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വചനഭാഗം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻറ്റേതത്രെ ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യും ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ലാസ്റ്റ് അവസാനത്തെ നമ്മുടെ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് ഈ വചനം മെയിൻ ആയിട്ടും പറയുന്നത് ദൈവത്തിലുള്ള പ്രത്യാശയാണ് ദൈവത്തിൽ നമ്മൾ ലൈഫ് നന്നായിട്ട് വരും നല്ലതായിരിക്കും അങ്ങനെയുള്ള ഒരു പ്രത്യാശയിലേക്കാണ് ഒരു അങ്ങനെ ഒരു ഇതിലേക്കാണ് ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നത്